ഞാൻ ഒരാഴ്ച മുന്നേ ആമസോണ്ന്ന് ഒരു സാധനം വാങ്ങിന് അതെനിക്ക് ഇന്നലെയാണ് വന്നത് അത് ഞാൻ വാങ്ങിയ സാധനം ഒരു കോട്ടൺൻ്റെ ടീ ഷേർട്ടും ഒരു പാൻറ്റും ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിന് നല്ല കംഫട്ടബിളാന്നത് പിന്നെ അതിൽ പറഞ്ഞ ആ പ്രൊഡക്റ്റിനെ പറ്റിട്ട് തന്ന ഡീറ്റെയിൽസ് സെയിം സാധനം തന്നെയായിരുന്നു വന്നത് എനിക്കത് ഭയങ്കര കംഫർറ്റബിൾ ഇട്ടേരം നല്ല സുഖമുണ്ട് എനിക്കും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റിനും എല്ലാം ഭയങ്കര ഇഷ്ടായിന് ഞാൻ ആ പ്രൊഡക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കളറും അതേ സെയിം സാധനം തന്നെ ഒന്നും മാറ്റുല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടായിന് നല്ല രസമുണ്ട് ഇട്ടിട്ട് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടായിന് അതുപോലെത്തന്നെ ആ പ്രൊഡക്റ്റ്ന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് തുണി കോട്ടൺ ആണെങ്കിലും നല്ല സോഫ്റ്റാണ് നല്ല കട്ടിയുള്ള നല്ല ഇതുള്ള തുണിയാന്ന് വന്നത് എനിക്ക് നല്ലോണം ഇഷ്ടായിന് ഹസ്ബൻ്റിനും ഭയങ്കര ഇഷ്ടമായി ഞാനിന്നിട്ട് ഒന്നുംകൂടി ആ സെയിം സാധനം തന്നെ ഒന്നും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് ഉള്ളത് ഇന്നലെ ഞാൻ പുതുതായിട്ട് വേറെ ഒന്നും കൂടി ഓർഡറെയ്തിട്ടുണ്ട് ഇതെനക്കെന്തോ നല്ല രസമുണ്ട് നിങ്ങക്കും വേണമെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളു